ഈ കുട്ടികളുടെ മെച്ചപ്പെട്ട വികസനത്തിനുവേണ്ടി കൂടുതൽ വിദ്യാഭ്യാസപരമായ കണ്ടൻ്റുകൾ ടി വിയിലും ഓൺലൈനിലും വേണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കാരണം അത് കുട്ടികളെ കുട്ടികൾക്കതൊക്കെ വളരെ ഇപ്പം ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനെക്കാളും കൂടുതൽ അവർ കണ്ടു മനസ്സിലാക്കുമ്പോഴാണത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കാണുമ്പോഴാണ് അത് കൂടുതലും മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് കൂടുതൽ കണ്ടൻ്റുകൾ ടി വിക്കകത്തൊക്കെ ഇവരുടെ വിദ്യാഭ്യാസമായ കാര്യങ്ങളൊക്കെ വരുന്നത് കുട്ടികൾക്ക് വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ അതിൻ്റകത്ത് ദോഷവും ഉണ്ട് കാരണം ഇവർ ഈ മൊബൈലിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ടി വിക്കകത്ത് തന്നെ ആയാൽ അവരുടെ ശാരീരികമായ കാര്യ ശാരീരികമായ ക്ഷമത അങ്ങനത്തെ കായികം കാര്യങ്ങളൊക്കെ അവർക്കത് വേണ്ടാത്ത ദോഷകരമായി ബാധിക്കും അവരെ അതുപോലെ തന്നെ ഞാനങ്ങനെ വിദ്യാഭ്യാസ ചാനൽ അങ്ങനെയൊക്കെ ഫോളോ അങ്ങനെയൊക്കെ ചെയ്യുന്ന അതൊക്കെ എടുക്കാറുമുണ്ട് കാണാറുമുണ്ട് ഫോളോ ചെയ്യുന്നൊന്നും ഇല്ല എന്നാലും വേണ്ട കണ്ടൻ്റുകളൊക്കെ നമ്മൾ കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്